ആ ഹലോ ഓലെ അല്ലേ ആ ഞാൻ കഴിഞ്ഞ മാസം രണ്ടാം തീയതി കോയമ്പത്തൂരിലോട്ട് പോകുന്നതിനു വേണ്ടിയിട്ട് ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു എഴുപത് പതിനഞ്ച് തുടങ്ങുന്ന നമ്പറിലുള്ള ഒരു ക്യാബാണ് ബുക്ക് ചെയ്തത് ഒരു അനീഷ് ആയിരുന്നു അന്ന് ഡ്രൈവറ് ആ അതെ അതെ അതെ അതെ ഈ ഇപ്പോൾ ഞാൻ എനിക്ക് ഒരു ഈ ഒരു ട്രിപ്പ് കൂടി ഉണ്ട് ഈ മാസം അപ്പോൾ എനിക്ക് അതേ വണ്ടിയും അതേ ആള് തന്നെയാണ് എനിക്ക് വേണ്ടത് കാരണം ആള് നല്ല ക്യാരക്ടർ ആയിരുന്നു ഞാൻ പറയുന്ന രീതിയിലൊക്കെയാണ് ആള് പോയതും വളരെയധികം ഹെല്പ്ഫുള്ളായിരുന്നു ആള് അപ്പോൾ എനിക്ക് ഈ യാത്രയിലും ആളെ തന്നെ കിട്ടാൻ എന്താ ചെയ്യേണ്ടത് അല്ല അല്ല വേറെ ആൾക്കാര് ബുദ്ധിമുട്ടാണെന്ന് അല്ല പറയുന്നത് എനിക്ക് ആള് കുഴപ്പമില്ലായെന്ന് തോന്നി അപ്പോൾ പഴയ ഡ്രൈവറെയും ഈ വണ്ടി തന്നെയാണ് എനിക്ക് കുറച്ചു കൂടി കംഫർട്ട് ആയി തോന്നുന്നത് അതുകൊണ്ട് എനിക്ക് പഴയ ആളെ കിട്ടണം അതിനിപ്പോൾ എന്താ ചെയ്യുക ആൾക്ക് ഒഴിവ് ഉണ്ടാവുമോ ആഹ് ഒന്ന് നോക്കിയിട്ട് ഒന്ന് വേഗം ഒന്ന് ഒന്ന് നോക്കിയിട്ട് ഒന്ന് പറയണം കേട്ടോ ശരി ശരി ശരി ഓക്കെ